എനിക്ക് ഏറ്റവും ഇഷ്ട്ടമുള്ള ജോണർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്ന് ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ളത് സെൽഫ് ഡെവലൊപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ജെനറായാണ് അതിൽ നമുക്കു ഒത്തിരി പഠിക്കാൻ നമുക്കവസരം നൽകുന്നുണ്ട് ഏറ്റവും അടുത്ത ഞാൻ വായിച്ചിട്ടുള്ള സെൽഫ് ഡെവലൊപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം തിങ്ക് ലൈക് എ മങ്ക് എന്ന ജയ് ഷെട്ടി അദ്ദേഹം ഒരു ബ്രിട്ടീഷ് ഓതർ ആണ് അദ്ദേഹം ബ്രിട്ടീഷ് ആയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹമാണ് ഈ ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നത് ഈ ബുക്ക് നമ്മളെ ജീവിതത്തിനെപറ്റി വേറൊരു കാഴ്ചപാടുതന്നെ നൽകുന്ന ഒരു ബുക്കായിരുന്നു ഒത്തിരി എനിക്ക് ഇഷ്ടപെട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം എങ്ങനെയാണു തമാശകൾ വച്ചും സീരിയസ് ആയിട്ടുള്ള നമ്മൾക്കു കാര്യങ്ങൾ പറഞ്ഞുതരുന്നുണ്ടായിരുന്നത് അതുകേട്ടപ്പോൾ നമുക്ക് എന്റെ ജീവിതം എന്റെ കൈകൊണ്ടുതന്നെ മാറ്റിയെഴുതാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം നല്കിയിട്ടുണ്ടായിരുന്നു എന്റെ ജീവിതരീതിയാണ് എന്റെ ജീവിതത്തിനെ നയിക്കുന്നത് എന്നെനിക്കുമനസ്സിലായി അതിന്റൊപ്പംതന്നെ എനിക്ക് ആ ബൂക്കിലെഴുതിയിട്ടുള്ള ഹാബിറ്സ് അല്ലെങ്കിൽ വാല്യൂസ് അല്ലെങ്കിൽ കാര്യങ്ങൾ ഞാൻ എന്റെ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്റെ ജീവിതത്തിനെ എനിക്ക് മാറ്റിമറിക്കാൻ പറ്റുമെന്നുതന്നെ എനിക്ക് വിശ്വാസം നല്കിയിട്ടുണ്ടായിരുന്നു അതിന്റൊപ്പം തന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ അതെല്ലാം മാക്സിമം അപ്ലൈ ചെയ്യാനും ശ്രമിക്കാറുണ്ട് ചിലപ്പോൾ ജീവിതത്തിന്റെ സാഹചര്യം വച്ചു ചിലപ്പോൾ എനിക്ക് സമയത്തിന്റെ ക്ഷമത തോന്നാറുണ്ട് ക്ഷാമമായിട്ടു തോന്നാറുണ്ട് അപ്പോൾ ചിലപ്പോൾ അത് നടക്കാറില്ല ചിലപ്പോൾ അത് നടക്കും പക്ഷെ എന്തായാലും ഞാൻ അത് ശ്രമിക്കാറുണ്ട് അതാണ് എനിക്ക് പറയാൻപറ്റുള്ളു പിന്നെ വേറെ എനിക് ഇഷ്ടമുള്ള ജോൻറെ എന്നുവച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കഥകൾ ഒത്തിരി ഇഷ്ടാണ് അത് ഫിക്ഷൻ ആണ് എനിക്ക് ഇഷ്ടം ഫിക്ഷൻ എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമ്മക്ക് നമ്മുടെ ഇമാജിനേഷന്റെ കപ്പാസിറ്റീസിനെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു ജോൻറ ആണല്ലോ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഒത്തിരി കൂടുതൽ വേറൊരു ലോകം തന്നെ സൃഷ്ട്ടിക്കാൻ ഉള്ള കെൽപ്പ് ഫിക്ഷൻ എന്നുപറയുന്ന ജെനറക്കുണ്ടല്ലോ സൊ അതിയായി ഞാനത് വായിച്ചില്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഫിക്ഷൻ എന്നുപറഞ്ഞിട്ടുള്ള കാറ്റഗറി എന്ന് പെടുന്ന പുസ്തകങ്ങളാണ് ഞാൻ വായിക്കാൻ ഇഷ്ട്ടപെടാറ് ഹാരിപോട്ടറിന്റെ സീരീസ് ആകട്ടെ വാൾട്ടർമോട്ടിന്റെ കഥയും അതൊക്കെ വളരെയധികം രസകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കുഞ്ഞിനാൾ മുതൽ തന്നെ പിന്നെയെനിക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ളത് ഇങ്ങനത്തെ സൂപ്പർ നാച്ചുറൽ സീരിസ് ആണ് ഫിക്ഷൻ വരുമ്പോൾ ഷാഡോഹാൻഡ് എന്നു പറഞ്ഞിട്ടുള്ള സീരീസ് പെർസിജാക്സന്റെ സീരീസ് ഇതൊക്കെയാണെനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് നല്ല ബൂക്കായിട്ടാണ് അതൊക്കെ എനിക്ക് തോന്നിയത് കുട്ടിക്കാലത്തുതന്നെ മനസ്സിനെ വളരെയധികം വലുതാക്കുന്ന നമുക്ക് എന്തൊക്കെയാണോ വിചാരിക്കുന്നത് അതിലപ്പുറം നമുക്ക് ഒരു ലോകം തന്നെ സൃഷ്ട്ടിക്കാൻ സാധിക്കുന്ന അങ്ങനത്ത ഒരു ബുക്ക് ആണ് ഇങ്ങനത്തെ ഹാരിപോർട്ടർ എന്നുപറഞ്ഞിട്ടുള്ള ബുക്ക് അതൊക്കെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് കുട്ടിക്കാലം മുതലെതന്നെ നമ്മളിൽ അവ നമ്മളിൽ വലുത് എന്തൊക്കെയോ ഉണ്ടെന്നും അതിനെ വിശ്വസിക്കാമെന്നും ഒക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇമ്മാതിരി ഇൻഫിനിറ്റ് പോസിബിലിറ്റിസ് ഉള്ള ഈ ലോകത്ത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ റിയാലിറ്റി എന്നുപറഞ്ഞിട്ടുള്ള ഈ ഒരു നിമിഷത്തിൽ മാത്രം ഇങ്ങനെ ട്രാപ് ആയി ഇരിക്കേണ്ട ആവശ്യം നമുക്ക് ഈ ഇൻഫിനിറ്റ് പോസിബിലിറ്റീസിൽ വിശ്വസിച്ചു കൊണ്ടുതന്നെ നമ്മളുടെ ജീവിതം നയിക്കാമല്ലോ അപ്പോൾ ഒന്നു സെൽഫ് ഡെവലൊപ്മെൻറ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് അത് നമ്മളെ റിയാലിറ്റിയിൽ ജീവിക്കാൻ പഠിപ്പിക്കുന്നു നമ്മുടെ ചിന്തകളെ വലുതാക്കാനും നമ്മളെ ഒരു വളരെ നല്ല മനുഷ്യനാക്കാനും ഒരു ആത്മവിശ്വാസവും ഡിസിപ്ലിനും വേറൊരാൾക്കു കംപാഷനുമുള്ള ഒരു ഹ്യൂമൺ ആക്കാനും അതിനൊപ്പം തന്നെ നമുക്ക് ഫിക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് നമ്മളുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുന്ന അങ്ങനത്തൊരു ജെനോറ ആക്കി മാറ്റുന്നുണ്ട് സൊ ഇൻകേസ് ജീവിതത്തിൽ എനിക്ക് ഒരെണ്ണം മാത്രമേ ചൂസ് ചെയ്യാൻ പറ്റു എന്നുള്ള ഒരു നിമിഷം വരികയാണെങ്കിൽ ഞാൻ സെൽഫ് ഡെവലൊപ്മെൻറ് ആണ് ചൂസ് ചെയ്യുക എന്റെമേലുളള ആത്മവിശ്വാസവും എന്റെ ബ്രയിനിന്റെ കപ്പാസിറ്റിസിനെ ഇന്ക്രീസ് ചെയ്യാൻ പറ്റിയ ബുക്കുകൾ ലിമിറ്റ്ലെസ് എന്നുപറഞ്ഞിട്ടുള്ള ജിംകോയ്ക്കിന്റെ ബുക്ക് തിങ്ക് ലൈക് എ മംഗ് എന്നുപറഞ്ഞിട്ടുള്ള ജെ ഷട്ടിയുടെ ബുക്ക് ദി മംഗ് ഹു സോൾഡ് ഹിസ് വരാറി ബൈ റോബിൻ ഹെർമ ഇമ്മാതിരി ഈ ജനറയിൽ ഉള്ള ബുക്കുകളാണ് എനിക്ക് ഏറ്റവും അധികം വില് ഇഷ്ടമുള്ളത് നമ്മുടെ ഹ്യൂമൺ നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മുടെ കപ്പാസിറ്റിസ് തന്നെ നമുക്ക് മാക്സിമം യൂട്രലൈസ് ചെയ്യാൻ പഠിപ്പിച്ചു തരുന്ന ബുക്ക്സ് ആണ് എനിക്ക് ഏറ്റവും അധികം ഇഷ്ട്ടം അത് എന്റെ ജീവിതത്തിൽ ഞാൻ അപ്ലൈ ചെയ്യാനും മാക്സിമം ശ്രമിക്കാറുണ്ട്